ഹലോ ആ പറഞ്ഞോളൂ ആ ലോണല്ലേ എങ്ങനെ ഗോൾഡ് ആണോ അല്ല ഞാൻ ചോദിച്ചത് ഈ ഗോൾഡ് പണയം വെച്ചിട്ട് ലോൺ എടുക്കാനാണോന്നാണ് ചോദിച്ചത് ആ ഓക്കെ ഓക്കെ അപ്പോൾ എത്ര എന്തോരം ഉണ്ടാവും അഞ്ച് പവനുണ്ടാവും നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് എത്രയാണ് വേണ്ടത് നമ്മൾ ഇപ്പോൾ പവന് മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാണ് ഒരു പവന് നമ്മൾ കൊടുക്കുന്നത് നാല് ശതമാനം ആണ് നമ്മൾ പലിശ ഈടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് ഏകദേശം എത്ര വേണ്ടി വരുമെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടിനടുത്ത് നമുക്ക് അഞ്ച് പവനല്ലേ പറഞ്ഞത് അഞ്ച് പവനല്ലേ പറഞ്ഞത് അഞ്ച് പവൻ ആവുമ്പം രണ്ടിനടുത്ത് ആ ഒന്നര അത്ര ഒക്കെയേ വരുള്ളൂ ഒന്നരക്കുള്ളിലേ വരൂള്ളൂ ആ ഒന്നരയ്ക്കുള്ളിലേ വരൂ നമ്മൾ മുപ്പത്തേഴ് സംതിംഗ് വെച്ചാണ് കൊടുക്കുന്നത് മുപ്പത്തേഴ് ഇരുന്നൂറ് വെച്ചേ കൊടുക്കൂള്ളൂ അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്ഥലമോ അങ്ങനെ എന്തേലും ഈടായിട്ട് വെക്കാനുണ്ടാവോ ഓക്കെ അപ്പം നമുക്ക് സ്ഥലം വെക്കുവാണെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ബെറ്ററ് കാരണം നമുക്ക് പലിശയ്ക്ക് എന്തേലൊക്കെ ഈ നമുക്ക് കുറച്ച് തരാനും കഴിയും പിന്നെ സ്ഥലം എന്തേലൊക്കെ വെക്കുവാണേൽ നമുക്ക് ഈ ഗ്യാരൻഡറിൻ്റെ ആവശ്യം വേണ്ടി വരില്ല വേണ്ടി വരില്ല സ്ഥലം ആകുമ്പം നമുക്ക് അതിന്റെ നികുതി ചീട്ടും പിന്നെ നിങ്ങളുടെ കുറച്ച് പ്രൂഫും കാര്യങ്ങളും മാത്രം മതിയാവും ഗ്യാരൻഡറെ ഒന്നും വെക്കണ്ട ആവശ്യം ഇല്ല അപ്പം നമുക്ക് എമൗണ്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടിൻറ്റെ അടുത്ത് തരാൻ കഴിയും ആ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴത്തേക്കാണ് വേണ്ടത് എപ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ലോൺ വേണ്ടത് ഒരാഴ്ചയ്ക്കുളളിൽ നമുക്ക് ഇപ്പോൾ ഒരാഴ്ചയാണ് ടൈം എടുക്കുന്നത് കാരണം ഫോമ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ വീക്കാണ് ടൈമ് പറയുന്നത് വൺ വീക്കിനുള്ളിലാണ് നമുക്ക് കിട്ടൂള്ളൂ ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കീട്ട് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കേ